ഞാന് വരച്ചിട്ടുള്ള ചിത്രങ്ങള് ഇഷ്ടം പോലെയുണ്ട് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ടും വരയ്ക്കാനാണ് കൂടുതലായിട്ടും താല്പര്യമുള്ളത് അപ്പോൾ പലരീതിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാന് വരയ്ക്കാറുണ്ട് അപ്പോൾ ഇനി ഞാനിങ്ങനെ വരയ്ക്കുന്നതൊന്നും എന്റെ വീട്ടുകാര്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ചില സമയങ്ങളില് അപ്പോൾ കൂടുതലായിട്ടും ഞാനിങ്ങനെ എന്താ പറയുക വെറുതെ ഇരിക്കുന്നതായിട്ട് ഒക്കെ ആണ് അവര്ക്ക് തോന്നാറ് അപ്പോൾ അവര് കൂടുതലായിട്ടും ചീത്തയും കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട് അവരുടെ ഒരു എന്താ പറയുക സപ്പോര്ട്ട് കാര്യങ്ങള് ഒന്നും എനിക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല കാരണം ഞാന് ഫുള്ടൈം അതിന് അവിടെ റൂമിലിരുന്നിട്ട് വരയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കൂടുതലായിട്ടും അവര്ക്ക് എതിര്പ്പ് കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ എന്റെ കഴിവുകള് പരമാവധി എന്റെ മാതാപിതാക്കള് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരീ ഞാനിങ്ങനെ വരയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണുക എന്നിട്ട് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളൊന്നും അവര് പറയാറില്ല കാരണം എന്തെന്ന് വച്ചുകഴിഞ്ഞാല് ഞാന് വരയ്ക്കുന്നത് അവര്ക്ക് തീരെ ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കാം പക്ഷേ എന്റെ അമ്മയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ വരയൊക്കെ ഇഷ്ടമാണ് പക്ഷേ അച്ഛന് വല്യ കാര്യമായിട്ട് ഇഷ്ടമല്ല പക്ഷേ ഞാന് ഏതുനേരം ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നത് അമ്മയ്ക്കും വലിയ കാര്യമായിട്ട് താല്പര്യം ഒന്നുമില്ല അതുകൊണ്ട് അവരുടെ അഭിപ്രായം ഒക്കെ ഇങ്ങനെയാണ് മെയിന് ആയിട്ട് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം